ഹലോ വൈദ്യുതി ഓഫീസല്ലേ ഞങ്ങൾ അവധിക്കാലം ചിലവഴിക്കാനായിട്ട് ബാംഗ്ലൂരിൽ പോവുകയാണ് അതിനുമുമ്പായിട്ട് എല്ലാ ബില്ലുകളും എനിക്കൊന്ന് ഓഡർലാണെന്ന് ഉറപ്പാക്കണം അതിനായിട്ട് എൻ്റെ വൈദ്യുതി ബില്ലിൻ്റെ ഒരു കോപ്പി ഡ്യൂപ്ലിക്കേറ്റയച്ച് തരാൻ പറ്റുമോ സാറേ ഞാൻ ഇനി കുറെ നാൾ കഴിഞ്ഞേ വരത്തുള്ളൂ അതിനുമുമ്പായിട്ട് നേരത്തെ ഉപയോഗിച്ചിരുന്ന ബില്ലുകളെല്ലാം ഒന്ന് ഓഡർലാക്കാൻ വേണ്ടിയാണ് എന്തെങ്കിലും പെൻഡിങ്ങുണ്ടെങ്കിൽ അതൊന്ന് നോക്കി സാറ് എനിക്കതിൻ്റെയൊരു കോപ്പി അയച്ചു തരുമോ ഞാൻ അവിടേക്ക് വരണമോ സാറിനെ നേരിട്ട് കാണണോ അതൊന്ന് അറിയിക്കണം അതോ സാറ് ഫോണിലൂടെ തന്നെ അത് കോപ്പി അയച്ച് തരുമോ ഞാൻ പോകുന്നതിനു മുമ്പ് ഇപ്പോൾ പാക്കിങ്ങൊക്കെ നടന്നോണ്ടിരിക്കയാണ് അതിനുമുമ്പായിട്ട് ഞാനവിടെ വരണമോ അത് ഈ അടുത്ത ദിവസങ്ങളിൽ രണ്ട് മൂന്ന് ദിവസത്തിനകം ഞാനങ്ങ് പോകും അതിനു മുമ്പ് ഏതെങ്കിലും ഒരു സൗകര്യപ്രദമായ തീയതി അറിയിച്ചാൽ ഞാനവിടെ വരാം എൻ്റെ ബില്ലുകളൊക്കെ എനിക്കൊന്ന് നോക്കണം എന്തെങ്കിലും ഒരു ജൂൺ മാസത്തെ ഒരു കുടിശ്ശിക ഉണ്ടെന്ന് തോന്നുന്നു അതെത്രയാണ് അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ അല്ലെങ്കിൽ പിന്നെ ഫ്യൂസൂരാൻ വന്നാൽ പിന്നീട് ഞാൻ വരുമ്പോഴത്തേനതിൻ്റെ സ്ഥിതി പിന്നീട് പുനസ്ഥാപിക്കാനത് കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് എല്ലാമൊന്ന് ഓഡർലാക്കാനാണ് ഞാനാഗ്രഹിക്കുന്നത് അതിന് എങ്ങനാണെന്നൊന്ന് പറയണം സാറേ ഞാൻ അവിടെ വരാം വന്നിട്ട് അതിന് വേണ്ടതായിട്ടുള്ള നടപടി